ലോക്ക് ഡൗൺ ടൈംന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കറിയാം നമ്മളേറ്റോം അധികം അപ്രതീക്ഷിതമായി വന്നൊരു ലോക്ക് ഡൗൺ ആണത് അത്രയേറെ നമ്മളെല്ലാവരും സഫ്റ് ചെയ്തു ലോക്ക് ഡൗൺൻ്റെ സമയത്ത് ആ ഒരു സമയത്തെന്ന് പറയുന്നത് നമ്മളുടെ ജോലിക്കാർക്കാണെങ്കിലും ജോലിക്ക് പോകാൻ പറ്റുന്നില്ല സ്കൂൾ വിദ്യാഭ്യാസം മര്യാദക്ക് ലഭിക്കുന്നില്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ നല്ല രീതിക്ക് സഫ്റ് ചെയ്തു ആ ഒരു സമയത്തും ഫുൾ ടൈം എല്ലാവർക്കും വീട്ടിൽ വെറുതെ ഇരിയ്ക്കുന്നത് കൊണ്ട് മൊബൈല് ലാപ്ടോപ്പ് ഇതക്കെ ഉപയോഗിച്ചിരിക്കാനാണ് പറ്റുകയുണ്ടായിരുന്നുള്ളു പിന്നെ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാംന്നല്ലാണ്ട് നമുക്ക് പുറത്തിറങ്ങാനോ ഒന്നിനും പറ്റാത്തൊരു സിറ്റ്വേഷനാരുന്നു ലോക്ക് ഡൗൺ ഈ ലോക്ക് ഡൗണ്ൻ്റെ സമയത്ത് എന്റോരനുഭവത്തിലെനിക്ക് പറയാനാണെങ്കിൽ ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയറ് സെക്കന്റ ഇയറ് പഠിക്കുന്നൊരു ടൈമിലാരുന്നീ ലോക്ക് ഡൗൺ വന്നത് അപ്പോൾ ഓൺ ലൈനായിട്ടാരുന്നീ ക്ലാസ്സ്കളക്കെ നടത്തിക്കൊണ്ടിരുന്നത് സത്യത്തിൽ ഓൺലൈൻ ക്ലാസ്സെന്ന് പറയുന്നത് അത്ര നല്ല രീതിക്ക് പോകാൻ പറ്റിയൊരു കാര്യമല്ല കാരണം ഓഫ് ലൈനായിട്ട് ക്ലാസ്സിലിരിക്കുന്നതും ഓൺ ലൈനായിട്ട് ക്ലാസ്സിലിരിക്കുന്നത് പറയുന്നതും വളരെ അധികം വ്യത്യാസമുള്ള കാര്യമാണ് ഓൺലൈനായിട്ടിരിക്കുമ്പം നമുക്ക് അത്ര ക്ലിയാറാവില്ല ടീച്ചർമാരിങ്ങട് പറഞ്ഞ് തരുന്നതും ചെയ്യേണ്ട കാര്യങ്ങളൊന്നും നമുക്കത്ര പെർഫെക്റ്റായിട്ട് ചിലപ്പോൾ കേൾക്കാൻ പറ്റില്ല ചില റേയ്ഞ്ചിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടാവാം പല പല പ്രശ്നങ്ങൾ കൊണ്ടാവാം ഒന്നും പ്രോപ്പറായിട്ട് മുന്നോട്ട് കൊണ്ട് പോകാൻ പറ്റില്ല ഈ ഓൺലൈൻ ക്ലാസിലിരിക്കുമ്പോൾ ഓഫ് ലൈൻന്ന് പറയുമ്പോൾ നല്ല രീതിക്ക് പോയി നേരിട്ട് പോയരുന്നു നേരെ നേരെയുള്ള കോൺവെർസേഷൻലെ മിസ്സ്മാരെല്ലാം പറയുന്നു അത് ശ്രദ്ധിച്ചിരുന്ന് നമ്മൾ എല്ലാം പ്രോപ്പറായിട്ട് കൊണ്ട് പോമ്പറ്റും ആ ഒരു ടൈമിൽ ഓഫ്ലൈൻ ഓൺ ലൈനെന്ന് പറയുമ്പോൾ അതൊന്നും പ്രോപ്പറായിട്ട് ഒരു കൊണ്ട് പോകാനായിട്ട് പറ്റാത്തൊരവസ്ഥയായിരുന്നു ഓൺ ലൈൻന്ന് പറയുന്നത് അത്പോലെ തന്നെ ഈ കോവിഡിൻ്റെ സമയത്താണല്ലോ നമുക്കൊന്നും നമുക്ക് വീട്ടിത്തന്നെ ഇരുന്നാണ് നമ്മളെല്ലാ കാര്യവും ചെയ്തോണ്ടിരുന്നത് ഇപ്പോൾ എന്തെങ്കിലും ഷോപ്പിങ്ങിൻ്റെ കാര്യണങ്കിപ്പോലും എല്ലാം നമ്മൾ ഓഡ്റ് ചെയ്യുന്നു ബുക്ക് ചെയ്യുന്നു അതിനനുസരിച്ച് നമ്മളുടെ വീട്ടിൽ കൊണ്ട് തരുന്നു പക്ഷേ അങ്ങനെ പറ്റാത്ത സാഹചര്യങ്ങളുണ്ടാരുന്നു ഒന്നും ചെയ്യാമ്പറ്റാന്ത് നമ്മൾ തന്നെ നമ്മളുടെ വീടിന്റ്ള്ളിലടച്ച് പൂട്ടി ഇരിക്കേണ്ട അവസ്ഥ തന്നെ ലോക്ക് ടൗൺൻ്റെ സമയത്ത് വന്നൊരു സിറ്റ്വേഷൻ തന്നെയാണ്